കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇപ്പോൾ ഉയർന്നുവന്നുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ടുള്ള ജോലികളും റോളുകളും എന്ന് പറയുന്നത് എന്താ സ്വന്തം കാലിൽ നിൽക്കാനുള്ള എന്താ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളുടെ അല്ലേൽ ഈ വരുന്ന തലമുറയുടെ കഴിവുകളാണ് കാരണം പലതരത്തിലുള്ള കഴിവുകളവര് മാധ്യമങ്ങൾ വഴി ഫോൺ ഇൻ്റർനെറ്റ് മുഖേന പുറത്ത് കൊണ്ടുവരാൻ അവര് മാക്സിമം ശ്രമിക്കാറുണ്ട് അതവര് വരുമാനമായിട്ടു എടുക്കുന്നുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ സ്വന്തം ചാനലുകൾ ചാനലുകളിലൂടെ അവര് പാചക കുക്കിങ് പിന്നെ ഡയറക്ഷൻ അതായത് സ്കണ്ടൻടായിട്ടുള്ള സിനിമകൾ സീരിയലുകൾ വെബ് സീരിയലുകൾ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നേ യാത്രകൾ പിന്നെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന താമശകളാട്ടെ ഹാസ്യങ്ങളാട്ടെ ഒരു താ ഒരു തമാശ രീതിയിൽ അവര് പലരീതിയിൽ പ്രകടിപ്പിക്കാൻ നോക്കുന്നു കലകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറുപ്പക്കാർ ജീവിതത്തിൽ ഓരോന്നു പ്രകടിപ്പിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ അതിലൂടെ നിറവേറ്റാനും സമൂഹ സമൂഹത്തിൽ ഒരു നിലയും വിലയും സൃഷ്ടിക്കാനും അവർ ശ്രമിക്കാറുണ്ട് അപ്പം മാധ്യമങ്ങളിലൂടെയാണ് കൂടുതലും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്നത് കൂടുതലും എന്നാൽ ചില അവരാ എന്ന ഓരോ വ്യക്തികളുടെ വീട് വീട്ടിലെ കാര്യങ്ങളാവട്ടെ വിശേഷങ്ങളാവട്ടെ സന്തോഷം സങ്കടം അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നു ജനങ്ങളിലു ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു തുറന്ന് സംസ്ക സംസാരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഉയർന്നു വരുന്നു അത് ചില ജോലികളിലേക്കും മറ്റു മേഘലകളിലേക്കും അവർക്കൊരു തൊഴിലായിട്ടത് പോകുന്നു